ഹലോ ആ ജയേഷെ പിന്നെ നമ്മൾ പെയിൻ്റിൻ്റെ ഇത് ഫുള്ള് തീർന്നിട്ടില്ലല്ലോ അ ആ ആ അതായത് കൊ ഉം അല്ല എനിക്ക് ആ അതെ എനിക്ക് അടുത്താഴ്ച വേറെ പോവാൻ ഉണ്ട് അതായത് നാളത്തെ ഓളെ ഓളെയും കൂട്ടിട്ട് ഓളെ വീട്ട് പോവാനുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം പോകണം അപ്പം ഇത് ആ പെട്ടെന്ന് തീർത്താൽ നമുക്ക് ഇത് പോവാൻ കഴിയും ഇത് എത്ര ദിവസം ഇങ്ങനെ കാത്തിരിക്കുന്നു ദേ ഇന്ന് വന്നിട്ടും ഇല്ല പണിക്കാർ

അല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം താഴത്തെ എടുത്തതിൻ്റെ പെയിൻറ്റിൻ്റെ ബാക്കി എടുത്തിട്ട് പണിക്കാർ കൊണ്ട് പോയിന് അത് നിങ്ങൾ വേറെ എവിടെയോ അടിച്ചെന്ന് നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഈ നമ്മളെ പെയിൻറ്റ് കൊണ്ട് വേറെ അടിച്ചു എന്ന് അറിഞ്ഞിന് അപ്പം അത് പോലെ ആക്കാൻ പാടില്ല ഫുള്ള് ക്ലിയറാക്കിയിട്ട് നമുക്ക് തരണം ആ കുറച്ചിന് അല്ലെ ഓക്കെ ഓക്കെ ഉം

ആ അതെ ആ

ആ അതില്ല എനിക്ക് ഇപ്പോൾ നാളെ ഇപ്പോൾ ബുധനാഴ്ചക്കുള്ളിൽ പോകണം രണ്ട് ദൂസത്തിനുള്ളിൽ പോകണം ഇങ്ങനെ പോയ രണ്ട് ദൂസവെ ബാക്കിയുള്ളു ഇതിന് വെള്ളിയാഴ്ചയോ ആ അതെ അല്ലെ ആ ഓക്കെ ശരി ശരി ആ എഴുന്നാക്കിയ എങ്ങനെ ആക്കിന്നാൽ മതി വീടോ ശരി ആ ഓ ഓക്കെ ശരി ശരി ഓക്ക് ആ വെള്ളിയാഴ്ച പോയാൽ മതി വെള്ളിയാഴ്ച പോയാൽ മതി വെള്ളിയാഴ്ച